നമ്മുടെ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്ന പ്രദേശമാണ് അപ്പം ഗൈഡ് അവിടെ ഗൈഡുകൾ ഉണ്ട് അവർ സംസാരിക്കുന്ന ഭാഷ കൂടുതലും ഇംഗ്ലീഷ് ആണ് എങ്കിലും ഭാഷകളും അവർക്ക് വരുന്നവർക്ക് ഏത് ഭാഷയിലാണോ സംസാരിക്കാൻ പറ്റുന്നത് ആ രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഏത് ഭാഷയാണോ അവർ ച ഇപ്പം പറയന്നുത് അതനുസരിച്ചുള്ള രീതിയിലവർ സംസാരിക്കും ഗൈഡുകൾ ഇഷ്ടംപോലെ ഉണ്ട് അത് വിനോദസഞ്ചാരം ഉള്ള സ്ഥലവുമാണ് അതുകൊണ്ട് ഗൈഡുകളും കൂടുതൽ ഉണ്ട് സംസാരിക്കുന്നത് എല്ലാ ഭാഷകളിലും സംസാരിക്കുവാനും ആവും അവർക്ക് വരുന്നവർക്ക് അതിൻ്റെ രീതിയിലുള്ള അത് എന്താണ് അവർ ചോദിക്കുന്നത് അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സംസാരിക്കാനുള്ള ഗൈഡുകൾ ഉണ്ട് ഗൈഡുകൾ ഇവിടെ ഉണ്ട്